എനിക്ക് കൂടുതൽ ഇഷ്ടം നോൺ വെജിറ്റേറിയൻ ആഹാരങ്ങളാണ് കാരണം നോൺ വെജിറ്റേറിയൻ ആഹാരമെന്ന് വെച്ചാൽ കൂടുതൽ ആരോഗ്യം ലഭിക്കുവെന്നാണെന്റെ ഒരു കാഴ്ച്ചപ്പാട് എന്ത് മീൻ മാത്രവല്ല നോൺ വെജിറ്റേറിയന്റെ അകത്ത് വരുന്നത് പിന്നെ ബീഫ് വരുന്നുണ്ട് ചിക്കൻ വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ്സ് വരുന്നുണ്ട് നമ്മള് കടയിൽ പോയാലും നമ്മള് കൂടുതലായിട്ട് മേടിക്കുന്നത് നോൺ വെജിറ്റേറിയൻ ഐറ്റംസ് ആയിരിക്കും ഒര് ഒരിക്കലും ഞാൻ വെജ്ജായിട്ട് കഴിക്കാറില്ല എനിക്ക് കൂടുതലിഷ്ടവും നോൺ വെജിറ്റേറിയനാണ് അതുപോലെ തന്നെ വെജ്ജ് കഴിക്കുന്നത് നല്ലതാണ് ഒരുപാട് പൊ പോഷക ഘടകങ്ങളൊക്കെ ചേർന്നിട്ടുള്ളതാണ് ഡോക്ടർമാർ തന്നെ പറയുന്നുണ്ട് അപ്പം എന്റെ വീട്ടില് ഞാൻ വീട്ടിലെങ്ങനെ നോൺ വെജിറ്റേറിയൻ മേടിക്കുന്ന ആൾക്കാരാണ് കൂട്തലായിട്ടും ഉള്ളത് പച്ചക്കറി കഴിക്കുവെങ്കിലും ചിക്കൻ പോലുള്ള ഐറ്റംസാണ് കൂടുതൽ വീട്ടില് മേടിക്കുന്നത് മീനൊക്കെയാകുമ്പം എപ്പഴും ചന്തയിലൊക്കെ പോയിട്ട് മീൻ മേടിക്കും അല്ലെങ്കിൽ എവടെ എങ്കിലുമൊക്കെ പോയിട്ട് വരുമ്പത്തേക്ക് മീനൊക്കെ മേടിച്ചുകൊണ്ട് വരും ചിക്കൻ മേടിക്കും മേടിക്കും ഞായറാഴ്ച്ചകളിലാണെങ്കിൽ നമ്മള് പതിവായിട്ടും ബീഫ ഒക്കെ മേടിക്കാറുണ്ട് ചിക്കനും അതുപോലെതന്നെ പതിവായിട്ട് മേടിക്കാറുണ്ട് അപ്പം കൂടുതലും വീട്ടിലൊക്കെ ഇങ്ങനെ എല്ലാവരും കൂടെ ഒക്കെ വരുമ്പം ഫംഗ്ഷൻ ഒക്കെ വരുമ്പോഴത്തേക്ക് നോൺ വെജിറ്റേറിയനും വെജിറ്റേറിയൻ ആഹാരങ്ങളും നമ്മള് വീട്ടില് പാക പാകം ചെയ്യാറുണ്ട് അങ്ങനേ നമ്മള് വീട്ടിലിപ്പം വളർത്ത് മൃഗങ്ങൾക്ക് പോലും അവർക്കൊരിക്കലു അവര് നോൺ വെജിറ്റേറ്യൻ കഴിക്കുന്ന ആൾക്കാരല്ലല്ലൊ അപ്പം വീട്ടില് വരുന്ന വീട്ടിൽ കിടക്കുന്ന ആ അ മൃഗങ്ങൾക്ക് നമ്മള് നോൺ വെജിറ്റേറിയൻ ആണ് കൊടുക്കുന്നത് എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ പറയുക ആണെന്നുടെങ്കിൽ എനിക്കേറ്റവും കൂടുതലിഷ്ടം ഞാൻ പറഞ്ഞില്ലെ എന്താ നോൺ വെജിറ്റേറിയാനാണ് ഇഷ്ടം എന്റെ ഫ്രണ്ട്സും ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ പുറത്ത് പോയാൽ തന്നെ അവരൊരിക്കലും വെജിറ്റേറിയൻ ആഹാരം കഴിക്കാനിഷ്ടപ്പെടുന്നവരല്ല സഹോദരങ്ങളായാലും മറ്റുള്ള എന്റെ അടുപ്പമുള്ള ഫ്രെണ്ട്സുകളായാലും അവരൊക്കെ നോ നോൺ വെജിറ്റേറിയൻ ആഹാരം കഴിക്കുന്ന ആൾക്കാരാണ് അതുപോലെ തന്നെ മുട്ട പോലെ ഉള്ള ആഹാരങ്ങളിൽ ഒരുപാട് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് അത് നമ്മളൊരുപാട് കഴി കഴിക്കുന്നവരാണ് എന്ത് ജീവത്തിൽ ഒഴിച്ച് കൂട്ടാൻ പറ്റാത്ത സംഭവങ്ങള് തന്നെയാണ് ഈ വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ പറയുന്ന സംഭവങ്ങളൊക്കെ